ഇപ്പോൾ നമ്മൾ കൂടുതൽ ആയിട്ടും വേര് മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരുകളിലേക്ക് താഴ്ന്നു പോകുന്ന ആൾക്കാരാണ് കാരണം കാരണംമെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഓർമ്മകൾ അയവിറക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും കാരണം കൂടുതലായിട്ടും നമ്മൾ എന്താ പറയുക നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് പോകാ നമ്മുടെ പഴയ കാലം അതായത് നമ്മൾ പണ്ട് കളിച്ച് നടന്ന സ്ഥലങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുന്ന ആൾക്കാരാണ് മനുഷ്യർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഞാൻ എൻ്റെ പഴയ ഓർമ്മകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓ ആലോചിക്കാറുണ്ട് ഞാനിപ്പം ഇടയ്ക്കെൻ്റെ അമ്മ വീട്ടിലും തറവാടിൽ അങ്ങനെ പല സ്ഥല പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ ആ പണ്ട് ഞാനിവിടെ കളിച്ച് വളർന്ന സ്ഥലങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അയവിറക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതീലുള്ളൊരു ഓർമ്മകളൊക്കെ പുതുക്കാൻ വേണ്ടിയിട്ട് എന്നും കാത്ത് സൂക്ഷിക്കുന്ന കുറച്ച് ഓർമ്മകളാണ് അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഓർക്കാനും ഒ നമ്മളിപ്പോൾ അവിടെ പോയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ബാറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം പണ്ടൊക്കെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ മടൽ വെട്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക അപ്പോൾ അതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതെല്ലാം ഓർമ്മ വരും